എൻ്റെ വീടിൻ്റെ അടുത്ത് ബാങ്കുകൾ കാര്യങ്ങളൊക്കെ നോക്കുകയാണേൽ ഒരു മൂന്നാല് കിലോ മീറ്റർ ചുറ്റളവ് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഓരോ ബാങ്കുകൾ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ ചുറ്റുവട്ടം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ ഓരോ സെക്ഷന് ഓരോ ഡിപ്പാർട്മെൻറ്റ് ബേസിൽ ലോണുകൾക്കാണെങ്കിലും ഓരോ കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണെങ്കിൽ എങ്കിലും പിരിവ് കാര്യങ്ങൾക്കാണെങ്കിലും ഡെയിലി പേയ്മെൻറ്റ്സിനൊക്കെയായിട്ട് ഷോപ്പുകൾ വഴിയൊക്കെ കളക്ഷൻ എടുക്കാൻ വരുന്ന ആൾക്കാരും അതുപോലെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒക്കെ വരുന്ന ഇഷ്ടംമാതിരി ബാങ്കിലെ സ്റ്റാഫ് കാര്യങ്ങൾ ഇഷ്ടം മാതിരി വരുന്നുണ്ട് എല്ലായിടത്തും പേയ്മെൻറ്റ് ചെയ്യാനും ലോൺ എട് ലോൺ ഏൽപ്പിക്കാൻ ഒരാൾ അതുപോലെ അതിൻ്റെ തിരിച്ചടവ് കാര്യങ്ങൾ നോക്കാൻ വേറെ ഒരാൾക്കാർ അങ്ങനെ ഡിപ്പാർട്മെൻറ്റ് ബേസിൽ ഇഷ്ടംമാതിരി ആൾക്കാർ വരുന്നുണ്ട് പിന്നെ ഓരോരുത്തർ അവരവരുടേതായ ഇത് ബാങ്കുകളുടെ ഓരോ ഫെസിലിറ്റീസും കാര്യങ്ങളും ഇൻട്രസ്റ്റ് റേയ്റ്റ് കാര്യങ്ങൾ അതൊക്കെ ഭയങ്കര വ്യത്യസ്തമായ രീതിയിലായിരിക്കും വരുന്നത് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ നിറവേറ്റാൻ പറ്റിയ രീതിയിൽ നമുക്ക് സഹായകരമായ രീതിയിലുമൊക്കെ പേയ്മെൻറ്റ് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ കളക്ഷൻസാണെങ്കിലും ഡെയിലി കളക്ഷൻസ് വന്ന് കടകളിലൂടെയും ഷോപ്പുകളിലൂടെയൊക്കെ വന്ന് കേറി എടുത്ത് അങ്ങനെയൊക്കെ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഏജൻറ്റ്മാരും അങ്ങനത്തെ കുറേ ആൾക്കാരും ഒക്കെ ഒക്കെത്തന്നെ കാണാൻ പറ്റുന്നുണ്ട് അതായത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒട്ടന ഒട്ടനവധി ഫെസിലിറ്റീസും കാര്യങ്ങളും ഓരോ അതിന് അതിന് വേണ്ടിയിട്ടുള്ള ഏജൻറ്റ്മാരുകളും അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അവരെ അവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഫിനാൻഷ്യലി ചെയ്യാൻ വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടു പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടാണെങ്കിലും ഏജൻറ്റ്മാർ കാര്യങ്ങളൊക്കെ നമ്മളെ സമീപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്